ഫോൺ എടുക്കാമോ ഏതൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ട് വലിയ വിലയുള്ളതൊന്നും വേണ്ടാ ഏകദേശമൊരു മുപ്പത് മുപ്പത്തഞ്ചിനുള്ളിൽ നത്തിങ്ങോ നല്ല കമ്പനിയാണോ അത് ആണോ സാംസങ്ങിൻ്റെ വല്ല ഫോണുമുണ്ടോ അൾട്രാ അത് എന്ത് വില വരും മുപ്പത്തയ്യായിരത്തിന് അല്ലേ പിന്നെ വേറെയേതൊക്കെയുണ്ട് കമ്പനി റിയൽ മീ അല്ലേ ഒന്ന് കാണിച്ചു തരുമോ അ ആണോ വിവോൻ്റെ അതിൽ ക്യാമറ ക്ലാരിറ്റിയോ ഉവ്വ് ആണോ പിന്നെന്തൊക്കെ ഫീച്ചേഴ്സുണ്ട്

അപ്പിതേ ആ ഇത് ഹേങ്ങാവുകയോ അങ്ങനെ വല്ല പ്രോബ്ലംസൊക്കെ വരുമോ ഇതാവില്ലേ ആ ഈ ചൂടാകുന്ന പ്രശ്നമൊക്കെ വരുമോ ഇപ്പോൾ

ആണോ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ടല്ലേ അപ്പോൾ ഇതിലൊക്കെ ഇതിലേതാണ് നല്ല ഫോൺ

എൻ്റെ ആ

ആ ഓക്കെ ഓക്കെ ഇതിനെന്താണ് റേറ്റ് വരുന്നത് മുപ്പത്തി ആയിരം ആ ഡിസ്കൗണ്ട് തരുമോ അപ്പോൾ ഇതിൻ്റെയൊപ്പം വേറെന്തെങ്കിലും നമുക്ക് കിട്ടുമോ

ആ ഓക്കെ ഓക്കെ ശരി ഇതാണല്ലേ കുറച്ചും കൂടി നല്ല ഫോൺ എന്നാൽ ഇതുതന്നെ എടുക്കാം ആ ഇതെടുക്കാം ആ അതെ ഇതെടുക്കാം ആ ഗൂഗിൾ പേ ആ അതെ ചെയ്തോളു അത് ചെയ്തോളു